ഒരുപാട് ഗവൺമെൻറ്റ് പദ്ധതികളുണ്ട് കേരളത്തിന് ഒരുപാട് രീതിയിൽ ബെനെഫിറ്റ് ചെയ്ത് ഇപ്പം അത് എജ്യുക്കേഷൻ തന്നെയാകട്ടെ അല്ലെങ്കിൽ ജോലിക്കാരാകട്ടെ അല്ലെങ്കിൽ ഹെൽത്ത് റിലേറ്റടാകട്ടെ അപ്പോൾ ഒരുപാട് സ്കീമുകളുണ്ട് ആൾക്കാർക്ക് ആൾക്കാരെ മുന്നിലോട്ടു കൊണ്ടുവരാം കഴിഞ്ഞ് ഒരുപാട് സ്കീംസ് ഇപ്പം ഹ തൗസൻറ്റ് ഡേയ്സ് ഹൺഡ്രഡ് ഡേയ്സ് ഓഫ് എംപ്ലോയ്ൻമെറ്റ് അല്ലെങ്കിൽ എന്താ സേവിങ് സ്കീം അങ്ങനെ നിറയെ ഉണ്ട് ആൾക്കാരെ സഹായിച്ച ഒരുപാട് ഗവൺമെൻറ്റ് പദ്ധതികൾ